ആ എന്തായിരുന്നു ചേട്ടാ വേണ്ടത് ഓ നല്ല ഫ്രഷ് തക്കാളിയാണ് ഇന്ന് രാവിലെ കൊണ്ട് വന്ന തക്കാളിയാണ് തക്കാളിക്ക് വില കുറവാണ് ഇരുപത് രൂപയേ ഉള്ളൂ കിലോയ്ക്ക് പിന്നെ നമ്മൾ ആ അതേപോലെ തന്നെ കുക്കുമ്പർ ഉണ്ട് പടവലം ഒക്കെ ഇന്ന് ഫ്രഷ് വന്ന സാധനങ്ങളാണ് ഇതൊക്കെ അതായത് വിഷം ഒന്നും അടിക്കാതെ ഉണ്ടാക്കി കൊണ്ട് വരുന്നതാണ് അതിന് ആ അതുകൊണ്ട്തന്നെ മൈസൂരിൽ നിന്ന് വരുന്നത് കൊണ്ട് ഇപ്പം വന്നിരിക്കുന്നതൊക്കെ പിന്നെ തക്കാളി ഒഴിച്ച് ബാക്കി എല്ലാത്തിനും കുറച്ച് റേറ്റ് കൂടുതലാണ് കാരണം വിഷമില്ലാതെ വീടുകളിൽ അതായത് ഗാർഡനിങ് പോലെ ചെയ്തുകൊണ്ട് വരുന്ന അതായത് സ്ത്രീകൾ കുടുംബശ്രീ സ്ത്രീകൾ ചെയ്യുന്ന പച്ചക്കറിയൊക്കെയാണ് ഇതിൽ ഉള്ളത് കൂടുതലും

ആ എളവന് കിലോയ്ക്ക് ഇരുപത് രൂപയാണ് ഇപ്പോൾ കണ്ടില്ലേ എളവനൊക്കെ നല്ല വെയിറ്റ് ഒക്കെയുള്ളയൊരു അഞ്ച് കിലോയൊക്കെ വരുന്ന എളവനൊക്കെയാണ് വെരുന്നത് വലിയ വലിയ നല്ല അതായത് ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ഓ ബ്രൊക്കോളി ഉണ്ട് കേട്ടോ ബ്രൊക്കോളിക്ക് നാപ്പത്തിയഞ്ച് രൂപയാണ് കിലോയ്ക്ക് റേറ്റ് വരുന്നത് ആ കിലോയ്ക്ക് ബ്രൊക്കോളിക്ക് നാൽപ്പത്തഞ്ച് രൂപ ഒരു ബ്രൊക്കോളി രണ്ട് കിലോ ഒന്നര കിലോ മൂന്ന് കിലോൻ്റെയൊക്കെ അടുത്തുണ്ടാവും കിലോയ്ക്ക് നാല്പത്തഞ്ച് രൂപയാണ് കുക്കുമ്പർ ഉണ്ട് കുക്കുമ്പർ ഉണ്ട് കാബേജ് ഉണ്ട് പിന്നെ മത്തൻ വെള്ളരി കുമ്പളങ്ങ പയർ ബീൻസ് പച്ചമുളക് ചീര പിന്നെ ചേമ്പ് ചേന ഇതൊക്കെ വീട്ടുകളിലുണ്ടാക്കുന്നതാണ് ഗാർഡനിങ് ചെയ്ത് എടുക്കുന്നതാണ്

പച്ചമുളകിന് നൂറ് രൂപ കിലോയ്ക്ക് താ ഏ ക്യാരറ്റ് എൺപത് മധുര കിഴങ്ങാണോ ഉദ്ദേശിച്ചത് അതെയോ ഇതുവരെയായിട്ടും എൻ്റെ ഓർമയിൽ ഇല്ല ഇനി വരുവാണെങ്കിൽ പറയാം കൈപ്പക്ക കിലോയ്ക്ക് അറുപത് രൂപ അതെ അതെ അതെ ഇല്ല ഹോം മേയ്ഡ് ആണ് രണ്ടുമുണ്ട് ബൈ വെള്ളയും ഉണ്ട് പച്ചയും ഉണ്ട് പച്ചയ്ക്ക് കുറച്ച് കയ്പ്പ് കൂടുതലാണ്

ഉള്ളി മുപ്പത്തിമൂന്ന് കിലോയ്ക്ക്

ബീൻസ് എഴുപത് ഓ ആവശ്യത്തിന് ആ ആ കിട്ടും വെജിറ്റബിൾസ് വെജിറ്റബിൾസ് എല്ലാം നിങ്ങൾക്ക് പിന്നെ എക്സ്ട്രാ എത്ര വേണമെങ്കിലും എടുക്കാം അപ്പം നമ്മൾ ഹോൾസെയിലുമുണ്ട് റീറ്റേയിലുമുണ്ട് ഹോൾസെയിൽ ആവുമ്പോൾ നമ്മൾ കുറച്ച് ക്യാഷ് അഡ്ജസ്റ്റ് ചെയ്യും റീറ്റേയിൽ ആവുമ്പോൾ കൊഴ റീറ്റേയിൽ ആവുമ്പോൾ ഈ സെയിം ക്യാഷ് ഈയൊരു റേറ്റിന് തന്നെയായിരിക്കും എടുക്കുന്നത്